ഹലോ ആരാണ് സ്റ്റുഡിയോയിൽ നിന്നാണോ എൻ്റെ മകളുടെ കല്യാണം ആയിരുന്നത് അപ്പം അതിന് ഫോട്ടോ എടുക്കുന്ന കാര്യം പറയാനായിട്ടായിരുന്ന് പിന്നെ നിങ്ങളുടെ റേറ്റും കാര്യങ്ങളുമൊക്കെ എങ്ങനെയാണ്

അല്ല ഫോട്ടോയും വീഡിയോയും വേണം വേണം വേണം രണ്ടും വേണം അതെ അതെ അല്ല കല്യാണവുമുണ്ട് മനസ്സമ്മതവുമുണ്ട് രണ്ടുമുണ്ട്

അതിനും വേണം അതെ അതെ അതെ ഫുള്ള് നിങ്ങളെ കാര്യങ്ങൾ അതെ അതെ വേണം വേണം വേണം അല്ലല്ല ഒറ്റ ആൽബം മതി അപ്പം ആദ്യം നമ്മുടെ ആദ്യം മനസ്സമ്മതം പിന്നെ മധുരം വെയ്പ്പ് പിന്നെ കല്യാണം അങ്ങനെ അതെ അതെ എത്രയാണ് അയ്യോ അതിച്ചിരി കൂടുതലല്ലേ

എന്തായാലും നമ്മൾ പരിചയക്കാരല്ലെ കുറച്ച് നമുക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതൊക്കെ താ ഞാനതു കൊണ്ടല്ലെ നിധിയെ തന്നെ വിളിച്ചത് അതുകൊണ്ടാണെ നമുക്ക് ഇല്ല ഞാൻ അന്വേഷിക്കുന്ന എനിക്ക് നിധിയെ വിശ്വാസ അതു കൊണ്ടാണ് ഞാൻ പിന്നെ നിധിയെ തന്നെ ഏല്പിക്കാമെന്നു വെച്ചത് അപ്പം നമുക്ക് മാക്സിമം എനിക്കറിയാം നിധിയുടെ ഫോട്ടോസൊക്കെ നല്ലതാണ് ഞാൻ എനിക്കറിയാമല്ലോ നേരത്തൊട്ട് നമുക്കറിയാവുന്നതല്ലെ അതു കൊണ്ടാണ് ഞാൻ വേറെയെങ്ങും അന്വേഷിച്ചിട്ടില്ല അപ്പം നിധിയാകുമ്പം നല്ലതായിട്ട് ചെയ്യുകയും ചെയ്യും നന്നായിട്ട് റേറ്റും കുറയ്ക്കും ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ഏൽപ്പിക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് നമ്മളൊന്നും പറഞ്ഞു തരേണ്ടല്ലൊ എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ ഓക്കെ

ഓക്കെ ഓക്കെ എന്നാലും ഇപ്പം പിന്നെ ഡിസംബർ ഇരുപത്തിയാറിനാണ് മനസ്സമ്മതം നമുക്ക് ഡിസംബർ ഇരുപത്തിയാറിന് മനസ്സമ്മതം വെച്ചിരിക്കുന്നത് പിന്നെ സമയം പതിനൊന്നരക്കാണ് വെച്ചിരിക്കുന്നത് നിങ്ങൾ ഫോട്ടോഗ്രാഫർ ആകുമ്പോൾ നേരത്തെ വരണമല്ലോ രാവിലെ വരണമല്ലോ നേരത്തെ പിന്നെ ഇരുപത്തിയാറ് കഴിഞ്ഞിട്ട് പിന്നെ ജനുവരി രണ്ടാം തീയതി ആണ് നമ്മുടെ കല്യാണം അപ്പം ഡിസംബർ മുപ്പത്തിനാണ് ഡിസംബർ മുപ്പത്തിനാണ് നമ്മൾ മധുരം വെയ്പ്പ് വെച്ചിരിക്കുന്നത് ഒരു ഡിസംബറിൽ ഡിസംബർ മുപ്പതൊന്ന് ഡിസംബർ മുപ്പത്തിയൊന്നിന് മധുരം വെയ്പ്പും വെച്ചിരിക്കുകയാണ് അതുകഴിഞ്ഞ് പിന്നെ രണ്ടാൾക്കും ഒരു ദിവസം നമുക്ക് റെസ്ററ് വേണമല്ലൊ അപ്പം ഇപ്പം ഈ പഴയ പോലെ അല്ല നേരത്തെയൊക്കെ തലേദിവസം മധുരം വെയ്പ്പ് വെക്കുന്നത് അപ്പം നമ്മൾ ആകെ ടൈയേർഡ് ആയിട്ടായിരിക്കും പിന്നെ കിടന്നുറങ്ങുന്നു അതെ അതെ അതെ അപ്പം അതു കൊണ്ടാണ് ഈ മുപ്പത്തിയൊന്നിലേക്ക് മാറ്റിയിരിക്കുന്നത് അതെ അതെ ആ ഏഴുമണിക്കാണ് ഏഴുമണിക്കാണ് ചടങ്ങ് വെച്ചിരിക്കുന്നത് അന്നേരം പിന്നെ അത് ആ ഡേറ്റും കൂടി കുറിച്ചിട്ടേക്കണം മുപ്പത്തൊന്ന് പിന്നെ രണ്ട് കേട്ടോ എല്ലാം വളരെ ഭംഗിയാക്കി തരുമല്ലോ അല്ലെ മധുരം വെയ്പ്പിന് കുറച്ച് നേരത്തെ എത്തിയേക്കണം നമുക്കാ ഏഴുമണിയെന്നു പറഞ്ഞാൽ ഒരു ആറു മണിയൊക്കെ ആകുമ്പോഴേ പോന്നേക്കണം ഓക്കെ ഓക്കെ എല്ലാം അറേഞ്ച് ചെയ്തേക്കാം പിന്നെ പെണ്ണിനെ കെട്ടിക്കുന്നത് പാലായിലാണെ അതൊരു പാലായിൽ അങ്ങോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് വണ്ടിയുണ്ടല്ലൊ വണ്ടിയൊക്കെ ഉണ്ട് ഉണ്ട് വണ്ടി വന്നോളാം വണ്ടിയെ ന്ന് അതെ റേറ്റ് നന്നായിട്ട് കുറച്ചു തരണം കേട്ടോ ഞാൻ വേറെ ആരോടും ചോദിക്കുന്നില്ല ഒന്നുമില്ല നിധി തന്നെ എല്ലാം കാര്യങ്ങളും അത് നോക്കിയും കണ്ടും ചെയ്താൽ മതി ഓക്കെ താങ്ക് യൂ താങ്ക് യൂ ഓക്കെ